ഇത് കല്യാൺ സിൽക്സല്ലേ ആ ഞാൻ എന്താന്ന് വെച്ചാൽ അടുത്ത മാസം ഇരുപതാംതീത്തേക്കാണേ ഒരു വെഡ്ഡിംങ്ണ്ട് അടുത്ത മാസം അല്ല സോറി ഒരു ജൂൺ മാസത്തിലേക്ക് ഒരു ജൂൺ മാസം ഇരുപതാംതീ ഒരു കല്ല്യാണം ഉണ്ടപ്പോൾ അതിൻ്റെ മുന്നേക്കായിട്ട് നമുക്കൊരു ആറ് ബനാറസ് സാരി വേണമെന്നുണ്ടായിരുന്നു കല്ല്യാണത്തേക്കാണ് അപ്പോൾ ആ ആ അത് ഹാൻഡ് മെയ്ഡായിരിക്കുമോ ഓക്കെ ആ ആ ആ ആ പിന്നെ കളേഴ്സ് എന്തൊക്കെ ടൈപ്പ് കളേഴ്സാണ് ഉള്ളതെന്ന് ഒന്ന് പറഞ്ഞ് തെരോ നമുക്ക് ഇത്തിരി എന്താ പറയാ ഇത്തിരി ആ നമുക്കിത്തിരി മോർണിംഗിലാണ് വെഡ്ഡിംഗ് നടക്കുന്നത് അപ്പോൾ ബീച്ചിലാണ് വെഡ്ഡിംഗ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഒന്നൂടെ എനിക്ക് തോന്നണത് ഡ്രൈ കേളേഴ്സല്ലേ ഒന്നൂടെ സ്യൂട്ടാവാ ത്രീ ആ അതെ അതെ ബ്രൈഡിനുള്ളതും കൂടെ ഇവിടുന്നാണ് എടുക്കാൻ ഉദ്ദേശിക്കണത് ആ അതെ അതെ അതും കൂടെ കൂട്ടീട്ടാണ് നമ്മൾ ആറ് ബനാറസ് സാരി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബ്രൈഡിനുള്ള കളറ് മാത്രം ഒന്ന് വേറെയാക്കീട്ട് എല്ലാ ടൈപ്പും ഒരു പോലെ ആയിക്കോട്ടെ പക്ഷേ ബ്രൈഡിനുള്ള ഡിസൈൻസും ഒത്തിരി വേ വേറിട്ട് നിന്നോട്ടെ ഒരേ കളറും ഒരേ എന്താ പറയാ ഒരേ പാറ്റേണും കൂടെ ആയിക്കോട്ടെ പിന്നെ നാ ഞാൻ പറയുന്നത് നമുക്ക് ബ്ലൗസ് തേയ്ക്കാൻ വേണ്ടീട്ട് ഉള്ള കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞ് തരോ

അതെ അല്ലേ ആ ഓക്കെ ഓക്കെ അതെ അല്ലേ അപ്പോൾ നമ്മൾ ഇത് എന്നത്തേക്കാണ് കിട്ടാന്ന് പറയാൻ പറ്റോ കാരണം ജൂൺ ട്വൻറ്റീത്തിനാണ് വെഡ്ഡിംഗുള്ളത് അപ്പോൾ അതിൻ്റെ മുന്നേ എന്തായാലും വേണല്ലോ

അതെ അല്ലേ

മെയ് ആ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ പാർസല് ചെയ്താൽ മതി അതാണ് ഒന്നൂടെ ബെറ്ററായിട്ടുണ്ടാവാ അപ്പോൾ നമ്മൾ ങേ സ്ഥലം സ്ഥലം തൃശ്ശൂർ തൃശ്ശൂർ ഞാൻ വാട്ട്സ്ആപ്പിൽ ലൊക്കേഷൻസൊക്കെ ഞാൻ വാട്ട്സ്ആപ്പ് ഷെയറ് ചെയ്യുന്നതാണൂട്ടോ ഓക്കെ ഓക്കെ ശരി താങ്ക് യൂ